ഹലോ ആ പറഞ്ഞോ ടീച്ചറെ ആ സുഖമായിട്ട് ഇരിക്കുന്നു ടീച്ചറെ ടീച്ചറിന് സുഖമല്ലേ ആ അതെ അതെ

ആ അതുതന്നെ മ്മ് ആ ആ അത് തന്നെ ആ അതാ ടീച്ചറെ നല്ലത് ആ അതാകുമ്പം അതാകുമ്പം ആ ആ അതാ ടീച്ചറെ നല്ലത് ആ അതെ അതെ ആ അതാകുമ്പം ആ ഞാൻ പറഞ്ഞേക്കാം ആ കുട്ടികളോട് പറഞ്ഞേക്കാം ആ ആ അതെ ടീച്ചറെ ആ പിന്നെ ആ ഇന്ന് ഇതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്

ആ ആ ആ അതെയതെ ടീച്ചറെ പിന്നെ ഏതൊക്കെ സ്പോർട്സാ നടത്തേണ്ടത്

ആ ആ പിന്നെ നമ്മുടെ യൂത്ത് ഫെസ്റ്റിവെല് ഒക്കെ നടത്തേണ്ടേ മ്മ് ആ ഓക്കെ ആ അതെയതെയതെ കുട്ടി ഇപ്പം ആ ആ അതെയതെ ആ അതുമതി അതുമതി പിന്നെ നാളത്തെ കുട്ടികളെ എല്ലാ കുട്ടികളെയും നല്ല പ്രാക്ടീസിന് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യോ എങ്ങനെ ആയിരിക്കും ആ അതെ അറിയാം ആ അതെ പിന്നെ മ്മ് മ്മ് മ്മ് ആ അതായിരിക്കും ആ അതെയതെ ആ മ്മ് പിന്നെ എക്സാം ഒക്കെ അടുത്ത് അടുത്ത് അല്ലേ വരുന്നത് പെട്ടെന്ന് സിലബസ് ഒക്കെ പഠിപ്പിച്ച് വിടുവൊക്കെ ചെയ്യേണ്ടേ ആ ആ അല്ലെങ്കിൽ പിന്നെ അതും കുട്ടികൾക്ക് ആ ആ അതെ ആ അതെ അതെ മ്മ് മ്മ് ആ അത് പിന്നെ നമുക്കും കുട്ടികൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും പറയാൻ പറ്റില്ല മ്മ് പിന്നെ ആ കഴിയാറായി ഇനി കുറച്ചുംകൂടെ ഉണ്ട് മ്മ് ആ പിന്നെ ആ മ്മ് പിന്നെ ടീച്ചറിന് എന്നാ ഉണ്ട് സുഖമല്ലേ ആ വീട്ടിൽ എല്ലാവരും ആ ആ വീട്ടിൽ എല്ലാവരും ഒക്കെ എന്നാ പറയുന്നു വീട്ടിൽ എല്ലാവരും എന്നാ പറയുന്നു ഹലോ ആ വീട്ടിൽ എല്ലാവരും എന്നാ എന്നാ പറയുന്നെ ആ സുഖമായിട്ടിരിക്കുന്നു ആ ആ ആ കുട്ടികളാവുമ്പം കൂടുതൽ ആക്ടീവ് ആയിട്ടൊക്കെ